അതേല്ലോ അപ്പോള് വേറെ മീനൊന്നും വേണ്ട നെന്മീനുണ്ട് കുറവായുണ്ട് ഏ വറ്റയുണ്ട് ആകോലി വെറ്റയുണ്ടേ ഞ ആ നിങ്ങള്ക്ക് ഏതൊക്കെ മീനാണെന്നന്നുകൂടെയൊന്നു പറഞ്ഞേ ഓലക്കൊടുവ ഉണ്ടോ ഓലക്കൊടുവ നെയ്മീന് കൂടെ കൂടെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഇതു നമുക്കെന്നും ചെയ്യാൻ പറ്റും നിങ്ങള്ക്ക് എന്തോരം ക്വാണ്ടിറ്റിയാണു വേണ്ടത് മൂന്ന് ഓക്കെ ആ ആ ഓ നമ്മള്ക്കു നമ്മുടെ കയ്യില് കിടക്കുകയല്ലേ ചവറു പോലെ കിടക്കുകയല്ലേ സാധനം ആ ഡെയിലി വേണ്ടതാണ് അല്ലേ ഓക്കെ അപ്പോള് അതിനകത്തു യാതൊരു മാറ്റവുമില്ല കാര്യമെന്നുവച്ചാല് നല്ല ഹൈ ഫ്രഷ് മീന് കടപ്പുറത്തൂനിന്നും നീണ്ടകരയില്നിന്നും നേരിട്ടിറക്കുന്നതാണ് ഹൈ ഫ്രഷ് അതീ മറ്റേ നമ്മുടെ മീന് പറഞ്ഞാല് എല്ലാവർക്കും നല്ല തൃപ്തിയാണ് കാര്യമെന്നുവച്ചാല് ആ കെമിക്കല്സൊന്നും ചേർക്കാത്ത നല്ല മീനാണ് അതുകൊണ്ട് നമുക്കു ചിലപ്പോള് നമ്മൾക്കൊരു സാധാരണ എല്ലായിടത്തും ഈ വിഷമൊക്കെ ചേർത്തു വരുന്നുണ്ടല്ലോ അപ്പോള് അതു ഞങ്ങള്ക്കില്ലാത്തതുകൊണ്ട് സാറിന്റെ വശത്തൂനിന്നൊരു അതുകൊണ്ട് യാതൊരു കാരണവശാലും ആ വ്യത്യാസം നോക്കേണ്ട നല്ല മീനാണ് നല്ല ഫൈ ഫ്രഷാണ് ആ നമുക്ക് ധൈര്യമായിട്ട് ആ

അത് നമുക്കു പറയാനായിട്ടുണ്ടല്ലോ ഓരോ ദിവസം ഓരോ മാര്ക്കറ്റാണ് മാർക്കറ്റ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഇന്ന് ഇന്ന് ഇന്നത്തെ വില ഇന്നത്തെ ഇന്നത്തെ വില നാനൂറ് രൂപ കിലോയ്ക്കു തരാൻ പറ്റും വറ്റ കിലോയ്ക്കും ആയിരത്തി ഇരുന്നൂറ രൂപയ്ക്കും തരാൻ പറ്റും അപ്പോ ചിലപ്പോള് നാളെയതു മുന്നൂറാക്കിത്തരാൻ പറ്റിയെന്നിരിക്കും നാളെ അത്ര അങ്ങനെ ഞങ്ങൾ ട്ടുണ്ട് കേട്ടോ ഇതു നല്ല കറക്റ്റായിട്ടുള്ള ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആ നമുക്ക് എത്ര സാരൊക്കെ ധാരാളമുണ്ട് തത്തയുണ്ട് തത്തയുണ്ട് ആ തത്ത മീനുണ്ട് തത്ത മീന്

അയലയ്ക്ക് ആ ആ ആ ആ അയലയ്ക്കു വേറെ നല്ല ഈ കിളിമീന് വേണമെങ്കില് കിളിമീൻ തരാം അല്ലങ്കില് മറ്റേ ആ ഇതുണ്ടല്ലോ ആ ആ കിളിമീന് വേണമെങ്കില് കിളിമീൻ തരാം പിന്നെ നെയ്മീന് ഇതുണ്ട് കുറവയുണ്ട് അത് മിനിമം ഉണ്ട് ഇരിക്കുന്ന

കടയിലുണ്ട് കടയിലുണ്ട് പറഞ്ഞുവിട്ടേര് പറഞ്ഞുവിട്ടേര് നല്ല നല്ല ക്ലീനാക്കി വേണമെങ്കില് വേണെങ്കി കൊടുത്തുവിടുന്ന സംവിധാനം നമുക്കിതിനുള്ള ആൾക്കാരുമൊക്കെ ഉണ്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിത്തരാനായ്ട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ആ കൊടുത്തുവിട്ടാളാം ആ ഓക്കെ ഓക്കെ നമ്മള് നല്ല മിതമായ പൈസയ്ക്കാണു നമ്മള് പൈസയൊന്നും കൂടുതല് മേടിക്കത്തില്ല എന്നും നമ്മള് എടുക്കന്ന മേടിക്കുന്ന നമ്മള് വില കുറച്ച് നിങ്ങള്ക്കു നല്ല തൃപ്തിയോടുകൂടി നിങ്ങള്ക്കു തരാനായിട്ടു പറ്റും കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ